നമ്മുടെ ഇന്ത്യയിൽ ആരോഗ്യസംരക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര താഴ്ന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്ന് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഫോറിൻ കൺട്രീസിൽ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തില് അവിടുത്തെ ഹോസ്പിറ്റലുകളായാലും അല്ലെങ്കിൽ അവിടുത്തെ ഈ ചെറിയ ചെറിയ ക്ലിനിക്കുകൾ ആണെങ്കിലും അത് വളരെ വൃത്തിയുള്ള സ്ഥലങ്ങളായിരിക്കും അവരത് പോലെ വൃത്തിക്ക് പരിപാലിക്കുന്നതായിരിക്കും എന്നാൽ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു ബാത്റൂമിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പോലും ആശുപത്രിയിലെ ബാത്രൂമിൽ ഒന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് സ്മെല്ല് കൊണ്ടും വൃത്തിയില്ലാതെയും ഭയങ്കര ബുദ്ധിമുട്ടാണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ നേരെ അയാളെ ഇവിടെ നാട്ടിൽ പറ്റില്ലെങ്കിൽ അവരെ പുറത്തേക്ക് ഡോക്ടർമാർക്ക് അതായത് വേറൊരു സ്ഥലത്ത് പോയി ഡോക്ടർമാരെ കാട്ടുക എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ അമേരിക്കക്കോ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഡോക്ടർമാർ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ ആരോഗ്യ സംരക്ഷണത്തിനൊള്ളരു എന്താണ് ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്കൊന്നും എത്തിയിട്ടില്ല ഇപ്പോഴും താഴ്ന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് പിന്നെ ഗവൺമെൻറ് ഇപ്പോൾ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ മാറ്റി മെഡിക്കൽ കോളേജ് ആക്കുന്നു അങ്ങനെ ഒരുപാട് പദ്ധതികൾ കൊണ്ട് വരുന്നുണ്ട് കുറേ കുറേ ഡോക്ടർമാരെയും നേഴ്സുമാർക്കും എല്ലാം പുതിയ പുതിയ ട്രെയിനിങ് ക്ലാസ്സുകളും എല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുമായി നമ്മുടെ ഒരു നാട്ടിലെ ഇതിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തേയില്ല കാരണം അത്രത്തോളം താഴ്ന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു ജനസം ആരോഗ്യസംരക്ഷണത്തിൻ്റെ സംവിധാനം ഉള്ളത് മറ്റുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റേതായ അച്ചടക്കവും ശുചിത്വവും അതെല്ലാം ഉണ്ട് പക്ഷേ പുറത്തൊക്കെ പോവാണെങ്കിൽ നമ്മുടെ നാ നാട്ടിൽ ഒരു ഹോസ്പിറ്റലിൽ പോകുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പൂര പറമ്പിനുള്ള ആൾക്കാരായിരിക്കും ഒരു ആശുപത്രിയിൽ ഉണ്ടാവുക ക്യൂ നിന്ന് ക്യൂ നിന്ന് മടുക്കും പക്ഷേ മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന സംവിധാനം അങ്ങനെയൊന്നും ഒരു ഒരാവശ്യമില്ല പിന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് ചിലവൊന്നും വേണ്ട പക്ഷേ പ്രൈ പബ്ലിക് അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ നമുക്ക് എന്തോരം പൈസ കൊടുക്കണം എന്ന് അറിയുമോ അതുപോലെ തന്നെ ചില ഡോക്ടർമാരുടെ അടുത്ത് പോയാൽ നമുക്ക് തോന്നും ഹോ എൻ്റെ ദൈവമേ എന്തൊരു അഹങ്കാരം ആണ് ഇതിനെന്ന് അവർക്ക് നമ്മുടെ അടുത്തേക്ക് നമ്മുടെ അടുത്തേക്ക് അവരവരുടെ ഡോക്ടർ എന്ന അഹങ്കാരത്തിലാണ് പെരുമാറുന്നത് ആ ഞാൻ പിന്നെ എൻ്റെ ഒരു അറിവ് വെച്ച് പറയുവാണെങ്കിൽ എന്താണ് മറ്റുള്ള രാജ്യങ്ങളേക്കാൾ താഴ്ന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ഡോക്ടർമാർക്കെല്ലാം ഉള്ള ഒരിത് മറ്റ് നമ്മളോടുള്ള ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളതാണ് അതുപോലെ തന്നെ സേവനങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ പോലും എല്ലാ ഡോക്ടർമാരും ഒരുപോലെയല്ല പല നല്ല ഡോക്ടർമാരും ഉണ്ട് എന്നാൽ അതുപോലെ അത്യാവശ്യം ഇങ്ങനയുള്ള ഡോക്ടർമാരും ഉണ്ടെങ്കിൽ പോലും എന്താണ് ഇത് താഴ്ന്ന നിലയിൽ തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ